പെട്രോളിൻ്റെ വിലവർധന നമ്മുടെ ബൈക്ക് യാത്രയെ ബാധിച്ചിട്ടുണ്ടോ എന്നു ചോദിച്ചാൽ ഒരുപാട് ഒരുപാടു ബാധിച്ചിട്ടുണ്ട് അതു നമ്മളെ പലതരത്തിലും പണ്ടൊക്കെ കുറച്ച് ഒരു അൻപതു രൂപയ്ക്കു പെട്രോൾ അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാടു ദൂരം വരെ യാത്ര ചെയ്യാനും മറ്റൊക്കെ സാധിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അൻപത് രൂപയ്ക്ക് ഒരു പെട്രോളടിച്ചാല് എവിടം വരെ പോകാൻ സാധിക്കും ഇന്ന് ചുരുങ്ങിയത് ഒരു നൂറു രൂപ നമ്മളെന്തായാലും പെട്രോളടിക്കണം അതുകൊണ്ടുതന്നെ ചെറിയ ആവശ്യങ്ങൾ നമ്മളെ അടുത്ത് എവിടെയങ്കിലും സാധനം വാങ്ങാനോ മറ്റോ അങ്ങനെയുള്ള ആവശ്യങ്ങൾ മാത്രമേ നമുക്കു നടക്കൂ അതേ സമയം നമ്മള് നാലുചക്രവാഹനമായ കാറിലോ മറ്റൊക്കെയാണു പോകുന്നത് എങ്കിൽ അതു നമുക്ക് അതിനേക്കാൾ പെട്രോളിൻ്റെ ആവശ്യമാണ് ഈ ബൈക്കിനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കുറവ് പെട്രോള് വരുന്നത് മറ്റുള്ളതിനൊക്കെ അതിനേക്കാൾ കൂടുതലാണു വരുന്നത് അത് അപ്പോള് അങ്ങനെ നോക്കുമ്പോള് നമ്മള് കാറല്ലാം മറ്റുള്ളതിനൊക്കെ പോകുമ്പോള് ഈ ഇന്ധന ഉപയോഗം കൂടിക്കൂടി വരും അപ്പോള് കൂടുതൽ കൂടുതൽ പരിസ്ഥിതിക്ക് അതു ഹാനികരമായി വരികയാണു ചെയ്യുക ആ കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നതും മറ്റും എന്താണു പറയുക സ്വകാര്യ വാഹനങ്ങളിലാണ് ബസ്സിന് എല്ലാവരും കൂടി യാത്ര ചെയ്യുന്ന രീതിയെല്ലാം ഒരുപാടു മാറിയിരിക്കുന്നു അപ്പോൾ പരിസ്ഥിതിക്കു കോട്ടം വരുന്ന പരിസ്ഥിതി മലിനീകരണത്തിനു കൂടുതൽ സാധ്യതകൾ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലത്തു നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക ഈ പെട്രോളിൻ്റെ വിലവർദ്ധന മൂലം പലരും ഇന്നു കറന്റിൻ്റെ വണ്ടികളിലേക്കു മാറിവരുന്നൊരു സാഹചര്യം ഇന്ന് കാണന്നുണ്ട് അതു നല്ലതാണോ അല്ലയോ എന്നു നമുക്ക് ഇനി ഭാവിയിലേ അറിയാൻ പറ്റുകയുള്ളു ഇന്നത്തെ കാലത്തു നമുക്ക് പെട്രോളിൻ്റെ വിലവർദ്ധന ഏറ്റവും കൂടുതല് എന്താണു പറയുക ബാധിച്ചിട്ടുള്ളതു വാഹനങ്ങൾ സാധാരണ എന്താണു പറയുക ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള ആളുകളെയായിരിക്കും മറ്റുള്ളവർക്ക് അതു വലിയ വിഷയമായി വരലുണ്ടാവില്ല പക്ഷേ വണ്ടിക്ക് എണ്ണ അടയ്ക്കുക എന്നതു തന്നെ ഏറ്റവും കൂടുതൽ ഭാരമായി വരുന്നു പോരാത്ത വീട്ടുചെലവു ബാക്കി കാര്യങ്ങളെല്ലാം വരുമ്പോള് ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ കാലത്തു നമ്മൾ ഓരോരുത്തർക്കും അതു നമ്മള് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണ്ട ഒരു കാര്യം കൂടിയാണ്